ഞാൻ ഒരു ഹോം ലോണിന് അപ്ലൈ ചെയ്യാൻ പോകുകയാണ് അപ്പോൾ അതിനൊരു ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ആവശ്യമാണ് ആ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻ്റ് കിട്ടാനായിട്ട് കിട്ടി അതിൻ്റെ ഒരു കോപ്പിയെടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ബാങ്കിൽ കൊടുക്കുവാനായിട്ട് എനിക്കൊരു ഒരു മെമ്മറി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് കിട്ടത്തക്ക രീതിയിലൊരു പ്രസ്താവന

നമുക്ക് അതിനകത്ത് എഴുതാനായിട്ട് അതായതത് അതായത് ഞാൻ ഹോം ലോണിന് അപ്ലൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇതാണ് ഞാൻ അതിനുള്ള ഞാൻ ഇൻകം ടാക്സ് പേ ചെയ്യുക അല്ലെങ്കിൽ ഇൻകം ടാക്സ് അടയ്ക്കുന്നൊരു മനുഷ്യനാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഞാനിതിനോടകം പിന്നെ അയക്കുന്നു അതു നോക്കിയിട്ട് എൻ്റെ ലോൺ എൻ്റെ ഭവന വായ്പ എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണമെന്നു ഞാൻ അഭ്യർത്ഥിക്കുന്നു എ ഒരു എഴുത്ത് ഞാനിതിവിടെ അപ്പോൾ എൻ്റെ കെട്ടിടത്തിൻ്റെ പ്ലാൻ അപ്പോൾ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എൻ്റെ ആദായ നികുതി ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻ്റ് എന്നിവ ഞാൻ ഇതിനോടകത്ത് സമർപ്പിക്കുന്നു ബാക്കിയുള്ള എല്ലാം എൻ്റെ ഹോം ലോൺ എത്രയും പെട്ടെന്ന് ശരിയാക്കിത്തരണമെന്നു ഞാൻ ഇതിനോടകം അപേക്ഷിക്കുന്നു